ഞാനീയിടെയൊരു സ്മാർട്ട് ഫോണോക്സിജനിൽ നിന്നെടുത്തായിരുന്നു ഓക്സിജൻ്റെ ഉൽഘാടനമായിരുന്നല്ലോ അപ്പോള് അവിടെ ഓഫറൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഞാനെടുത്തു ഓഫറക്കെണ്ടായിരുന്നു അപ്പോള് അവിടെ ചെന്നു എനിക്ക് മൊബൈലിൻ്റെ ബ്രാൻഡുകളെപ്പറ്റിയൊന്നും വലിയ പിടിയൊന്നുമുല്ല അപ്പോഴവിടെ ചെന്നപ്പോഴത്തേക്കും അവര് നമുക്ക് ഒരു ഫോൺ കാണിച്ച് ഇത് നല്ല ക്വാളിറ്റിയാന്നൊക്കെ പറഞ്ഞു ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് റേയ്ഞ്ച് വരുന്നതാണ് ഇരുപത്തിയേഴിന്റെ അടുത്ത് വരുന്ന ഒരു ഫോണാണ് ഞാനെടുത്തെ അപ്പോഴവര് പറഞ്ഞു നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ട് ക്യാമറയ്ക്ക് ഓഡിയോ നല്ലതാണ് പിന്നെ അവര് നമ്മള്ക്ക് ഇപ്പഴ്ത്തെ ഫോണിനൊന്നും ചാർജ്ജര് അതിൻ്റെ കൂടെ പ്രൊവൈഡ്യ്യുന്നില്ലല്ലോ പക്ഷേ ഇതിനുണ്ടായിരുന്നു ചാർജ്ജാറുണ്ടായിരുന്നു പിന്നെ ഹെഡ്സെറ്റ് ഞാൻ അല്ലാതെ മേ മേടിക്കണ്ടി വന്നു അപ്പോള് അവര് പറഞ്ഞു അത് നല്ല ബ്രാൻഡാണ് നല്ലതാണ് എന്നക്കെ കുറേ പറഞ്ഞു അങ്ങനെ ഞാനതെടുത്തു എടുത്താല് അവിടെ അവടെനിന്നു തന്നെ നമുക്ക് ചെക്ക്യ്ത് നോക്കാമായിരുന്നു ഫോട്ടോയ്ക്കൊക്കെ നല്ല ക്ലാരിറ്റിയുണ്ടായിരുന്നു ഓഡിയോ കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് ഞാനെടുത്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോള് എനിക്ക് ക്യാമറക്ക് ക്ലാരിറ്റി പോരാന്ന് തോന്നി പിന്നെ നമ്മളീ സിനിമയൊക്കെ കാണുമ്പഴാണങ്കിലും ഓഡിയോയ്ക്കൊന്നും വലിയ ഒര് ഒര് ഒര് ഇത് ഒര് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല പതറിച്ച ഒക്കെ തോന്നിത്തുടങ്ങി പിന്നെ ഈ ഫോൺ നമ്മള് വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്നത് നമ്മള് വിളിക്കുന്നയാൾക്ക് നല്ല ക്ലിയറായിട്ട് കേളഅക്കുന്നില്ല അങ്ങനത്തെ കുറേ കുറേ കംപ്ലൈൻ്റ്സെനിക്ക് തോന്നി ഈ ഫോണിനെ പറ്റി പിന്നെ കുറച്ച് യൂസ്യ്ത് കഴിയുമ്പോള്ത്തന്നെ ചാർജ് നന്നായിട്ട് താഴ്ന്നുപോവുക ചാർജിനിട്ടാലും ഭയങ്കര സമയെടുക്കും ഇത് കയറാൻ രണ്ട് മൂന്ന് മണിക്കൂറക്കേടുക്കും ചാർജ് കംപ്ലീറ്റാകാൻ കൂടി വന്നാല് ഒരൊന്നൊന്നര മണിക്കൂറിനകത്ത് ഇപ്പോഴത്തെ മൊബൈലെല്ലാം ചാർജ് കയറുന്നേല്ലേ പക്ഷെ ഇത് പറ്റുന്നില്ല ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം എടുക്കുന്നുണ്ട് അത്രയും മണിക്കൂറ് വെച്ച് നമ്മള് ചാർജ് ചെയ്തിട്ടും പെട്ടെന്നു തന്നെ ഇതിൻ്റെ ചാർജ് ഡൗണായി പോവുകയാണ് പിന്നെ അങ്ങനിങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളെനിക്ക് ഫീല്യ്ത് തുടങ്ങി കുറച്ച് യൂസ്യ്ത് കഴിയുമ്പോള് തന്നെ ഫോൺ ചൂടാവുക നന്നായിട്ട് പൊള്ളുന്ന പോലെ നമുക്ക് ഫീല്യ്യും അപ്പോള് നമ്മള് ടി വിയിലും ന്യൂസിലൊക്ക കാണുന്നുണ്ടല്ലോ ഈ മൊബൈലൊക്കെ ചൂടായി പൊട്ടിത്തെറിക്കുന്നപ്പ ആ ഒരു പേടി കൊണ്ട് ഞാനത് യൂസ്യ്യാതെ ഇരിക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോള് ഈ മൊബൈല് പരമാവധി എല്ലാ മൊബൈലും ആദ്യം കാണുന്ന ആ ഒരു ഇതൊക്കെയേ ഉള്ളൂ ആദ്യത്തെ ആ ക്ലാരിറ്റി ഓഡിയബിലിറ്റിയൊക്കെയേ ഉള്ളു അത് കഴിയുമ്പെല്ലാം ഡൗണായിത്തുടങ്ങും പിന്നത് നമുക്ക് തന്നാണ് ദോഷമുണ്ടാക്കുന്നത്